ഹലോ എനിക്ക് കുറച്ച് സ്വർണം പണയം വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു എത്ര ശതമാനമാണ് പലിശ വരുന്നത്

അധികം വേണ്ട ഒരു ഒന്നര പവനില് എത്ര കിട്ടുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് സ്ഥലം ഒരേക്കർ അല്ല അച്ഛൻ്റെ പേരില അത് വേണ്ട ഗോൾഡ് ലോണ് മതി

അ

ഒന്നര അ മാസം എത്ര രൂപ പലിശ വരും ശരി എന്നാൽ ഞാൻ രണ്ട് ദിവസത്തിനുള്ളില് വരാം ഞാൻ അങ്ങോട്ടേക്ക് എന്താ എടുക്കേണ്ടത് കൂടെ

അ എൻ്റെ പേരിൽ തന്നെയാണ്

അവര് നേരിട്ട് വരണ്ടല്ലോ നമ്മള് മാത്രം വന്നാൽ പോരെ

രണ്ട് ദിവസത്തിനുള്ളിൽ വരാം